ചില സമയങ്ങളിൽ ഞങ്ങള്ക്ക് വൈദ്യുതി കിട്ടാറില്ല അവിടെ മരം റബറിന്റെ ഇടകളിൽ കൂടെയുള്ള വയറിംഗ് കടിച്ചിരിക്കുന്നതിനാല് ചിലപ്പോള് മരങ്ങൾ കൊമ്പുകളൊടിഞ്ഞു പോയാല് അന്ന് രാവിലെ എട്ട് മണിക്ക് പോകുന്ന വൈദ്യുതി വൈകിയിട്ടഞ്ച് മണി ആയാലും ചിലപ്പം കിട്ടത്തില്ല ചിലപ്പോള് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പം കിട്ടും പിന്നെ വൈദ്യുതി പിന്നെ കാലാവസ്ഥ വ്യത്യസ്ത കാരണവും ചില ദിവസങ്ങളില് കിട്ടാറില്ല അങ്ങനെ വരുന്ന സമയം നമ്മുടെ ഫ്രിഡ്ജിൽ ഉള്ള സാധനങ്ങളെല്ലാം ചീത്തയായിപ്പോകുന്നു പിന്നെ നമുക്ക് വെള്ളം കുടിക്കാന് പറ്റത്തില്ല പല കാര്യങ്ങളും നടക്കുന്നില്ല